കോഴിക്കോട് ജില്ലയിൽ പലതരം കായിക വിനോദങ്ങൾ നമുക്കിവിടെ വേണമെങ്കിൽ നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മളിവിടെ മലപ്പുറം ജില്ലയോട് അടുപ്പിച്ച് നിൽക്കുന്നൊരു ജില്ലയായതുകൊണ്ട് മലപ്പുറം കാർ എന്നു പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫുട് ബോൾ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്കും കൂടുതലായിട്ട് ഫുട് ബോൾ കളിയും കാര്യങ്ങളൊക്കെ ഇവിടെ ടൂർണമെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള പരുപാടികൾ നമുക്കിവിടെ കോഴിക്കോട് ജില്ലയിൽ നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം അങ്ങനത്തെ കൊ കുറേ അധികം ഇത് അതായത് കുറേ അധികം കാര്യങ്ങളൊക്കെ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ സാധിക്കുന്നുണ്ട് ജില്ലയുടെ ബോധവത്കരണം അങ്ങനത്തെ പല രീതിയിലുള്ള പരുപാടികൾ കാര്യങ്ങളൊക്കെ നമുക്ക് ജി കോഴിക്കോട് ജില്ലയിൽ നടത്താൻ വേണ്ടി സാധിക്കുന്നെയാണ് ഇല്ലെങ്കിൽ സമൂഹപരമായിട്ട് വേണമെങ്കിൽ നടത്തുന്നതാണ് ഇപ്പം സമൂഹ വിവാഹം അങ്ങനത്തെ പല രീതിയിലുള്ള പരുപാടികൾ ബേപ്പൂർ ഫെസ്റ്റിൽ നടന്ന പല രീതിയിലുള്ള പരുപാടികളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെത്തന്നെ ബീച്ചിൽ ഇറങ്ങിയിട്ട് ബീച്ചിൽ സ്ക്യൂബ ഡൈവിങ്ങ് അങ്ങനത്തെ പല രീതിയിലുള്ള പരുപാടികൾ ബേപ്പൂരിൻ്റെ ഇതിൽ നടക്കുന്നുണ്ടായിരുന്നു പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹി ലൈറ്റ് മാളിൽ അതായത് ഹൈ ലൈറ്റ് മാളിൽ നമ്മൾ പല രീതിയിലുള്ള പരുപാടി പ്രോഗ്രാംസ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട് അങ്ങനത്തെ പല രീതിയിലുള്ള പരുപാടികൾ നമുക്കവിടെ നടക്കാറുണ്ട് കോഴിക്കോട് ബീച്ചിൽ പലരു പല തരത്തിലുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കോഴിക്കോട് ബീച്ചിൽ നടക്കാറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പരുപാടികൾ നമ്മുടെ കോഴിക്കോട് നടക്കാറുണ്ട്